സാർ കഴിഞ്ഞ ദിവസം റോക്കി ഏജൻസി എന്നു പറയുന്നൊരു ഏജൻസിയിൽ നിന്ന് ഒരു കാർ വാടകയ്ക്കെടുക്കുകയും അതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയായിട്ട് എൻ്റെ കൂടെ രണ്ട് പേരുമുണ്ടായിരുന്നു ഈ വന്നിരിക്കുന്ന കാറിനുള്ളിൽ ആ സിഗരറ്റ് കുറ്റികളും വൃത്തിഹീനമായ രീതിയിലത്തെ അലമ്പായിട്ടിട്ടിരിക്കുന്ന രീതിയിലെ പേപ്പർ കഷ്ണങ്ങളും പൊടിപടലങ്ങളും ഉള്ളിൽ ക്യാബിനുള്ളിൽ ഉണ്ടായിരിക്കുകയും അതിനകത്ത് സിഗരറ്റിൻ്റെ കുറ്റികൾ സിഗരറ്റിൻ്റെ മണം ഏറെക്കുറേ നല്ലപോലെ ഉണ്ടായിരുന്നു അതനുസരിച്ചും അതും ഡ്രൈവറോ മാസ്കോ കോവിഡ് സമയമായതിനാൽ മാസ്കോ അതിനുള്ള സേഫ്റ്റി ആയിട്ടുള്ള അതിനുള്ള ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതുള്ള രീതിയിലുള്ള യാത്രയും അതുപോലെതന്നെ ഈ വണ്ടി ആണെങ്കിൽ ഈ കാറാണെങ്കിൽ അതിന് പൊടിപടലം പിടിച്ചിരിക്കുന്നുവെന്ന് വെള്ളമൊഴിച്ച് പോലും കഴുകാത്ത രീതിയിലുള്ളൊരു കണ്ടീഷനിലാണത് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റിക്കേറ്ററാണെങ്കില് ഒരു സൈഡ് റൈറ്റ് സൈഡിലെ ഇൻറ്റിക്കേറ്ററാണെങ്കില് അതില്ല ഓണ് വല്ലപ്പോഴുവേ ഹോണടിക്കത്തുള്ളൂ ടയറാണെങ്കിൽ ബാക്ക് സൈഡിലെ ടയറാണെങ്കിലൊരു ടയര് കട്ട എല്ലാം ആയതും എപ്പോള് വേണേലും ഒടിഞ്ഞ് വീഴാവുന്ന രീതിയിലുള്ളൊരന്തരീക്ഷത്തിലാണാ ടയര് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും അവസാനം ഞാനാ ഡ്രൈവറോട് ഷൗട്ടെയ്യേം മാസ്ക് മേടിച്ച് വെക്കുകയും വെക്കാൻ വേണ്ടിയായിട്ടദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും അതനുസരിക്കാതെ അയാള് മുന്നോട്ട് പോവുകയും അത് മാസ്ക്ക് കോവിഡൊന്നും അതൊന്നും പ്രശ്നമല്ല അതൊന്നും എല്ലാവർക്കൊന്നും വരുന്നതല്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞതിനെന്നെ ചീറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോയത് അതിനാൽ ഇതിന്നൊരു പരിഹാരം കണ്ടെത്തണമെന്ന് താല്പര്യപ്പെടുന്നു